വയനാട് ജില്ലകളിൽ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് വയനാട് വിഷൻ അതുപോലെത്തന്നെ മലനാട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാർത്ത മാധ്യമങ്ങളുണ്ട് ആ അവ വഴിയാണ് ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ വാർത്തകളൊക്കെ അറിയുന്നത്